ആ ഹലോ എന്തിനാണ് വിളിച്ചത് എന്താ ചേച്ചി ആ അതെ ആ ഹാ ആ ഹാ വീട് എത്ര രൂപ വാടക വരെ ആകാം ചേച്ചി ആഹ് എന്തൊക്കെ സൗകര്യങ്ങൾ വേണ്ടത് വണ്ടി കയറണോ കാറ് കയറണോ ആ ഹാ മുറിയെത്രണ്ണം വേണം എല്ലാത്തിനും അറ്റാച്ച്ഡ് വേണോ ആഹ് ഹാ ആഹ് ആഹ് വാര്ത്ത മുറി വേണോ വാര്ത്ത വീടാണോ ആ ഹാ എവിടെയാണ് ലൊക്കേഷന് നോക്കുന്നത് എവിടെയാണ് ടൌണിൽ ആഹ് ടൌണിലീ റേറ്റ് കിട്ടുമോ ഇത്രയും റേറ്റ് പതിനയ്യായിരം രൂപയ്ക്കൊക്കെ ടൌണിൽ പാടായിരിക്കും ആഹ് പള്ളി ഏത് പള്ളീലാണ് പോകേണ്ടത് ഏത് പള്ളീടെ അടുത്താണ് ആഹ് ആഹ് ആഹ് ഹാ ഹാ ആഹ് ഹാ ഹാ ഹാ ഹാ ഹാ നോക്കാം ചേച്ചി ഞാൻ നോക്കീട്ട് ഇപ്പം ചങ്ങനാശ്ശേരി പാലായിപ്പള്ളിക്ക് അടുത്തെന്ന് പറയുമ്പം ഉള്ളിലോട്ടുള്ള റോഡിലായിരിക്കും മെയിന് റോഡിൽ ഈ റേറ്റ് കി ആഹ് ആഹ് വണ്ടി സ്വന്തമായിട്ട് വണ്ടിയുള്ളതാണോ കാറ് അതോ ബസ് ആഹ് ബസ് അപ്പം ബസ് റൂട്ട് ഒന്നും നിര്ബന്ധം ഇല്ലല്ലേ ആഹ് ബെസ് സ്റ്റോപ്പിനടുത്ത് ആഹ് ആഹ് ഹാ ഹാ സ്റ്റോപ്പിനടുത്ത് വെള്ളം ആഹ് വെള്ളം മുന്സിപ്പാല് മുന്സിപ്പല് കണക്ഷന് വേണമായിരിക്കും അല്ലേ അതോ കിണറ് മതിയോ ആഹ് കിണറ് കിണറുള്ളൊരു വീട് അറിയാം പക്ഷേ അവിടെ മുന്സിപ്പല് കണക്ഷനുണ്ടോന്ന് ഉള്ളത് അത് നോക്കണം ആഹ് നോക്കാം നോക്കാം ആഹ് അത് നോക്കാം ചേച്ചി അപ്പം ഞാനൊരു ഒന്ന് രണ്ട് ആ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നോക്കീട്ട് പറയാം ആഹ് പിന്നെ ഇതിന് നമ്മളിപ്പോഴത്തെ ഇതിൽ ഒരു മാസത്തെ വാടകയാണ് അതിന്റെ നമ്മുടെ കമ്മീഷനേ അപ്പം അതും കൂടൊന്ന് മനസ്സിൽ കരുതണം ഏഹ് പിന്നെ ഇപ്പോൾ അവിടെയൊക്കെ വാടകയ്ക്ക് കൊടുക്കാനാള്ക്കാര്ക്ക് ഒത്തിരി മടിയുണ്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരൊക്കെ ആവണമെന്നൊക്കെ നിര്ബന്ധം പറയും ആഹ് അതും കൂടെ അവർ പറയും ആഹ് അതൊന്ന് ശ്രദ്ധിക്കണം എന്തായാലും ഞാനൊരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പറയാം ചേച്ചി ആ ആ ശരി ഓക്കെ ശരി ബൈ